അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല്